ഒത്തിരിയേറെ വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്ത് എന്നെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും വിഷമഘട്ടം ഏറ്റവും വെല്ലുവിളിയെന്നൊക്കെ തോന്നുന്നൊരു കാലഘട്ടം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാച്ചൻ മരിച്ചൊരു സമയമാണ് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങൾ എൻ്റെ താഴെ രണ്ടുപേരുണ്ട് അമ്മ ഒന്നുമല്ലാത്ത ഒറ്റപ്പെട്ടപോലെ അവസ്ഥ അതിൽനിന്നു റിക്കവറി ആയിട്ട് ഇത്രയും കാലം ഇങ്ങോട്ട് മുമ്പോട്ട് വന്നു വച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ പെട്ടന്ന് വേർതിരിച്ച് പോകുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ എന്നു വച്ചാൽ വെല്ലുവിളിയാണ് സങ്കടപ്പെട്ട കാര്യമാണോ സങ്കടമാണ് കാരണം ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ആയിരുന്നു അപ്പം മുന്നിലോട്ട് ഉണ്ടായിരുന്നത് അതു തരണം ചെയ്ത് ഇവിടം വരെ എത്തിയെന്നുള്ളതിൽ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്